ആ ലില്ലിയേട്ടാ അന്നൊരു വീടിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ലേ അത് എന്തായി പേര് നിധിൻ

അന്നു സംസാരിച്ചുണ്ടായിരുന്നു ഫോൺ ചെയ്തു സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ടു കണ്ടില്ല

ആ നമ്മൾ ഒരു അതെ അതെ അതിനൊരു ആയിരത്തി അഞ്ഞൂറ് സ്കൊയർ ഫീറ്റ് ആ റെയ്ഞ്ചിൽ വരുന്ന വീടാണ് നോക്കുന്നത്

അല്ലല്ല ടൗണിൽ വേണ്ടാ ഉള്ളിലോട്ട് മാറിയിട്ട് മതി ടൗൺ ടൗണിൽ വേണ്ടെന്നു വച്ചിട്ടാണ് കുറച്ചുള്ളിലേക്ക് ഉള്ള വീടാണ് നോക്കുന്നത്

ആ അതിലൊരു ഒരു രണ്ട് ബെഡ് റൂമോ ഒരു അറ്റാച്ഡ് ബാത്റൂമുള്ളൊരു ബെഡ് റൂം പിന്നെ കോമൺ ആയിട്ടുള്ളൊരു വീടാണ് വേണ്ടത് ആ കുഴപ്പമില്ലല്ലോ അല്ലേ അതായത് കുറച്ച് സ്ഥല സൗകര്യം കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാരുന്നു കാരണം എന്തെങ്കിലും കൃഷിയൊക്കെ സൈഡിൽ ചെയ്യുമ്പോൾ അങ്ങനെ സ്ഥലവും വീടും ഓക്കെ ആ സ്ഥലവും വീടും കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ സൗകര്യമായി അങ്ങനെയാണ് നോക്കുന്നത് ഇതിപ്പോൾ ടൗണിൽനിന്ന് അടുത്തന്നെ ആയിരിക്കുമോ അതോ ഒരുപാട് ഉള്ളിലേക്ക് വരുമോ അതോ എങ്ങനെയാണ് ഓക്കെ റോഡ് സൗകര്യമൊക്കെ നോക്കണ്ടേ കാരണം വണ്ടികളൊക്കെ വരുമ്പോൾ ഞാനും ബിസിനസ് തന്നെയാണ് വേറെ വീട് അതെവിടെയാണ് അല്ല ഒരുപാട് ഉള്ളിലോട്ടാണോ ആ നമ്മൾ അത്യാവശ്യം കുറച്ച് ആ ആല്ല അത്യാവശ്യം നമുക്കടുത്ത് കുറച്ച് സൗകര്യങ്ങളും വേണം ഒരുപാടെന്നാൽ ടൗൺ ഏരിയയിലും വേണ്ടെന്ന് വച്ച് കുറച്ചുള്ളിലേക്കാണെങ്കിലും അതിപ്പോൾ നമുക്കിത് എപ്പോൾ നോക്കാൻ പോവാം അല്ല എനിക്ക് റേറ്റിൻ്റെ കാര്യമറിയില്ല ഉള്ളിലോട്ട് ഏരിയ ആകുമ്പോൾ കുറച്ച് കമ്മിയാകില്ലേ എങ്ങനെയാ നിങ്ങടെ റേറ്റ് പറയുമോ

അതെയല്ലേ ആ അത് ആ എന്നാൽ പിന്നെ എന്നാൽ പിന്നെ നമുക്ക് നേരിട്ടു പോയി സംസാരിക്കാം എപ്പോഴാണെന്നു വച്ചാൽ ഇന്ന് ഇപ്പോൾ നടക്കില്ല നമുക്കൊരു നാളെയോ മറ്റന്നാൾ പോയാലോ ആ ഈ ഞായറാഴ്ച്ച എന്നാൽ നോക്കാം ചേട്ടൻ്റെ ഒഴിവനുസരിച്ച് വിളിച്ചാൽ മതി അപ്പോൾ ഒരുമിച്ച് പോകാമല്ലോ ആ നമ്പർ ഈ നമ്പർ തന്നെയല്ലേ കഴിഞ്ഞ തവണ വിളിച്ച ആ നമ്പർ ആ അതെ അതെ ആ നമ്പർ ഓക്കെ ആ ശരിയെന്നാൽ ചേട്ടനെ അപ്പോൾ ഞാൻ ഞായറാഴ്ച്ച വിളിക്കാം വിളിച്ചിട്ട് നമുക്ക് നേരിട്ട് പോവാം ഓക്കെ ശരിയെന്നാൽ ആ ഓക്കെ ശരി